വ്യായാമവും യോഗയും തമ്മിൽ വ്യത്യാസമുണ്ട് വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബോഡിയുടെ എല്ലാ അവയവങ്ങളിലെ ഉള്ള ചൽ ചലന ശേഷി യേലാണ് ചലനശേഷിയുടെ പുനരുത്ഥാനത്തിനു വേണ്ടിയിട്ടാണ് നമ്മളീ വ്യായാമം നടത്തുന്നത് അതേസമയം യോഗ നടത്തുന്നത് നമ്മൾ എല്ലാ സമയത്തും അല്ല സൂര്യാ ഉദയ ഉദയത്തിനു മുന്നായിട്ടാണ് യോഗ നടത്തുന്നത് സമാധാനപരമായുള്ള ഒരന്തരീക്ഷത്തിലാണ് യോഗായെപ്പോഴും നടത്തുന്നത് അതേ സമയം വ്യായാമം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്പം രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ ആയിട്ടു വ്യായാമം നടത്താം നമ്മുടെ സൗകര്യമനുസരിച്ചുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുമെന്നാണ് ഈ വ്യായാമം അതുപോലെ തന്നീ ജിമ്മിലൊക്കെ പോകുന്ന വരാണെങ്കിൽ അവരുടെ സമയത്തിനാണ് പോകുന്നത് രാവിലെയും പോകുന്നവരുണ്ട് വൈകുന്നേരം പോകുന്നവരുണ്ട് അവരുടെ സമയത്തിൽ മാറ്റമുണ്ട് അപ്പം സമയം ഈ യോഗ നടത്തുമ്പോൾ അതിനു കൃത്യനിഷ്ടയോടും സമാധാനപരമായൊരന്തരീക്ഷത്തിലോടും കൂടിയാണ് യോഗ നടത്തുന്നത് പ്രാർത്ഥനാനിർഭരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ യോഗയിൽ പിന്നെ സമാധാനപരമായിട്ടു മനസ്സിനു ശാന്തത നൽകി ഈ ആണ് യോഗ നടത്തപ്പെടുന്നത് ഇപ്പം വ്യായാമം ചെയ്യാമെന്നുള്ള ഇപ്പം പിന്നേ രാവിലെയൊരു നടത്തം ആ അല്ലെങ്കിൽ പിന്നേ പലതരത്തിലുള്ള എക്സസൈസുകൾ കുനിഞ്ഞും നിവർന്നുമുള്ള എക്സസൈസുകൾ പിന്നെ കൈ മാ മാത്രമായിട്ടു ഫിസിയോ ഒരു വ്യായാമമായിട്ട് ഫിസിയോ തെറാപ്പി പോലെയുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെ അതിനൊരു സമയമോ ഒന്നുമില്ല അതുപോലെതന്നെ വ്യാ നമ്മ് എ കൂടുതലായിട്ടും എല്ലാവരും ഈ വ്യായാമത്തോടാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നതെന്നു തോന്നുന്നു എല്ലാവർക്കും സൗകര്യമായിട്ടുള്ളതാണ് യോഗ ചെ ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽപ്പോലും നേ ഒരു വീട്ടിലൊക്കെയാണെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ ഇരുന്നു ചെയ്യാൻ പറ്റിയത് വ്യായാമം തന്നെയാണ് ഇപ്പോഴത്തെ രോഗാവസ്ഥയിൽ കൂടുതൽ എല്ലാവരും യോഗയെക്കാട്ടിലും കൂടുതലായിട്ടു വ്യായാമത്തെയാണാശ്രയിക്കുന്നത് അപ്പോൾ യോഗയിൽ ഇപ്പം അന്തരീക്ഷ സാ വീ ഒരു ഒരു വീട്ടിലിരുന്നു യോഗാ അഭ്യാസം നടത്തുന്ന ആളായിട്ട് അറിയത്തില്ല പിന്നേ യോഗ ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലമോ ഒരൂ പ്രത്യേകമായിട്ടു സമാധാനപരമായൊരന്തരീക്ഷം ഉള്ളയിടത്തൊക്കെയായിരിക്കും യോഗ നടത്തുന്നത് അതേസമയം വ്യായാമം നടത്തി എന്നത് അത് ഒരു സെൻറ്റർ ഒക്കെ ആയിട്ടും ഒക്കെയായിട്ടു പലയിടത്തും ഇപ്പോൾ ജിമ്മൊക്കെയായിട്ടു ജിമ്മിലൊക്കെ പോകുന്നവർ ഒരു സ്ഥാപനമൊക്കെയായിട്ടു നടത്തുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്ന യോ യോഗ നടത്തുന്ന എല്ലാ വ്യായാമം നടത്തുന്ന ആൾക്കാരുണ്ട് അവർക്ക് നം നമ്മളിലുള്ള ഉറച്ച വിശ്വാസം നമ്മളിലുള്ള പിന്നെ വിശ്വാസം വർദ്ധിപ്പിച്ചു നമ്മുടെ പ്രാർത്ഥനാനിർഭരമായിട്ടുള്ള ഒരു ഓംകാ നമസ്ക്കാരമൊക്കെയാണാ യോഗയിൽ കൂടുതലായിട്ടും കാണുന്നത് അപ്പം അവർക്ക് അവരുടെ രാവിലെ എഴുന്നേറ്റുള്ള പ്രാർത്ഥനകൾ പിന്നേ കുളികൾ അതെല്ലാം ഈ യോഗാ അഭ്യസിക്കുന്നവർ ഇല് ഉണ്ട് എന്നാൽ ഒരു സമയം ഒരു വ്യായാമം നടത്താൻ പോകുന്നവർ ഇപ്പം എന്നാൽ പ്രാർത്ഥിച്ചിട്ടു തുടങ്ങണമെന്നോ അല്ലെങ്കിൽ ഒരു ദിനചര്യങ്ങ പ്രാ കുളിയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല പിന്നെ യോഗയിൽ ആണെങ്കിൽ സമാധാന അന്തരീക്ഷമാണവർ മുഖ്യമായിട്ടും സമാധാന അന്തരീക്ഷത്തിൽ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിനു ശാന്തത കൊടുക്കുക പ്രാർത്ഥനാനിർഭരമായ ഒരു ഒരു കാര്യമായിട്ടാണ് യോഗ നടത്താറുള്ളത് വ്യായാമം എപ്പോഴും ഇനിയിപ്പം കൃത്യമായിട്ട് എല്ലാ സമയമോ ഒരേപോലെ നടത്തിയില്ലെങ്കിലും നേ എപ്പോഴെങ്കിലുമൊക്കെ ഇതു ചെയ്യാം എന്നുള്ള ഉള്ള ഒരു മായ ഒരൂന്ന് മാറ്റിവെക്കാകുന്നയൊരു കാര്യമാണ് വ്യായാമം ഈ യോഗാഭ്യാസം ഈ സന്യസ്തരൊക്കെ സന്യാസിനിമാരൊക്കെ അവർ കൃത്യമായിട്ടും ഒക്കെ ഒരു മാറ്റിവെക്കുന്ന കാര്യമായിട്ടൊന്നു അവർ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ടു തന്നെ അവർ പിന്തുടർന്ന് അത് ചെയ്യുന്നതായിട്ടാണ് അറിയപ്പെടുന്നത് അതിനുള്ള പുസ്തകങ്ങളും ഒക്കെ ഈ യോഗാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന അതു ചെയ്യുന്നുള്ള പ്രയോജനങ്ങൾ അതിന്റെ ഗുണങ്ങൾ ഒക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതു വായിക്കുന്നതൊക്കെ നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ വ്യായാമവും യോഗയെല്ലാം ഒരുപോലെ നല്ലതാണ്